ഹലോ ഇത് ഡെലിവറി ഓഫീസല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത വസ്ത്രത്തിൻ്റെ നിറം അബദ്ധവശാല് മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത പാൻസിൻ്റെ ഓർഡർ റദ്ദാക്കാൻ വേണ്ടിയാണു ഞാൻ നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുന്നത് അതിനു വേണ്ട എന്തൊക്കെ നടപടികളുണ്ടോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് കഴിഞ്ഞ ദിവസം മെയ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇങ്ങനെ ഞാൻ പാന്റ്സ് ഓർഡർ ചെയ്തത് ദയവു ചെയ്ത് അതിനു വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്നെ ആദ്യമേ അറിയിക്കണമെന്നും എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഒമ്പത് എട്ട് നാല് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്നീ നമ്പറിൽ ദയവു ചെയ്തു ബന്ധപ്പെടണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അബദ്ധത്തിൽ പറ്റിയ ഈ പാൻറിൻ്റെ തെറ്റായ നിറം ഓർഡർ ചെയ്തതുകൊണ്ട് അത് അയയ്ക്കുന്നതിനു മുമ്പു തന്നെ എൻ്റെ ഓർഡർ റദ്ദാക്കണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക്യൂ